ഹലോ ഇത് ഫാർമർ ആണോ ആ ഞാൻ ഒരു വെജിറ്റബിൾ ഡീലർ ആണേ അപ്പം നമുക്ക് കുറച്ച് അതായത് നമുക്ക് പിന്നെ ഹോൾസെയിൽ ആയിട്ട് ഞാൻ കട നടത്തുന്നത് കേട്ടോ പച്ചക്കറീൻ്റെ അപ്പം നമ്മൾ ജൈവ പച്ചക്കറീൻ്റെയാണ് കട നടത്തുന്നത് അപ്പം നിങ്ങൾ ജൈവ കൃഷിയാണ് നടത്തുന്നതെന്ന് പറയുന്നത് കേട്ടു സത്യമാണോ അത്

ഇല്ല അല്ലേ ആ അങ്ങനത്തെ പച്ചക്കറികളാണ് വേണ്ടത് നിങ്ങളെ നിങ്ങളുടെ അടുത്ത് എന്തൊക്കെ പച്ചക്കറികളാണ് നിങ്ങൾ നട്ട് പിടിപ്പിക്കുന്നത്

അല്ല നമ്മൾ ഹോൾസെയിൽ റേറ്റിനാണ് വേണ്ടത് കാരണം ഞങ്ങൾ ഞങ്ങൾ കട നടത്തുന്നതല്ലേ അപ്പോൾ റീറ്റെയിൽ ആയിട്ട് കിട്ടിയാൽ നമുക്ക് കിട്ടിയാൽ ലാഭം അല്ലല്ലൊ അപ്പോൾ എങ്ങനെയാണ് പച്ചക്കറിക്ക് വെളീനെക്കാളും അതായത് രാസവളം ഉപയോഗിക്കുന്ന പച്ചക്കറീനേക്കാളും വിലയാണോ വില കുറവാണോ ആ ആ അപ്പം കുഴപ്പമില്ല ഈ ചീര നമുക്ക് ചീര വേണം തക്കാളി വേണം ഉള്ളി വേണം വെണ്ടയ്ക്ക വേണം ഉരുളക്കിഴങ്ങ് വേണം ബീറ്റ്റൂട്ട് വേണം ക്യാരറ്റ് വേണം പച്ചമുളക് വേണം പിന്നെ വഴുതന വേണം വെള്ളരി വേണം ഇഞ്ചി വെളുത്തുള്ളി അങ്ങനത്തെ എല്ലാം ഉണ്ടാവുമോ

ആണല്ലേ ആ അങ്ങനെ ആണെങ്കിൽ ഈ നമ്പറിൽ ആണോ വാട്സ്ആപ്പ് ഉള്ളത് ആ എന്നാൽ ഞാൻ ഈ നമ്പറിലേക്ക് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇതാക്കി ഇടാം നിങ്ങൾ എന്നാൽ കണക്ക് കൂട്ടിയിട്ട് എത്രയാണ് റേറ്റ് വരുന്നതെന്ന് പറയണം കേട്ടോ എന്നാൽ ഞങ്ങൾ ഗൂഗിൾ പേ ചെയ്യാം അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അടുത്ത് തന്നെ നിന്ന് വണ്ടി സൗകര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒന്ന് അവിടെ എത്തിച്ച് തരാൻ പറ്റുമോ അതിൻ്റെ പൈസയും കൂടെ ഞങ്ങൾ റെഡി ആക്കി തരാം അല്ലെങ്കിൽ ഗൂഗിൾ പേ ചെയ്ത് തരാം അതും കൂടെ ആ പൈസയും കൂടി കൂട്ടിയിട്ട് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറയണം കേട്ടോ ആ ഓക്കെ എന്നാൽ